ഹലോ ആരായിരുന്നു അ ആ അ ആ അ ആ ഓക്കെ നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമാണ് വേണ്ടത് നിങ്ങടെ ബഡ്ജറ്റ് എത്രയാണ് അൻപത് ലക്ഷോള്ളൂ ഇരുപത്തഞ്ച് സെന്റിന് അല്ലേ ടൗൺ ഏരിയാന്ന് പറഞ്ഞാൽ മെയിൻ ടൗൺ ഏരിയാലൊക്കെ നിങ്ങൾ അൻപത് ലക്ഷത്തിന് കിട്ടാൻ ഭയങ്കര എന്താണെന്നാ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാം നമുക്ക് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പം കുറച്ച് ഉള്ളിലോട്ട് ഇപ്പോൾ റോഡ് സൈഡ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ നമ്മുടെ നമ്മളിപ്പോൾ പരസ്യം ഇട്ടെക്കുന്ന പ്ലോട്ട് അങ്ങനെ അതായത് ഉള്ളിലോട്ടുള്ളതാണ് ആ കുറച്ച് അതായത് ടൗൺ അതായത് മെയിൻ കോഴിക്കോട് ടൗൺ അല്ലാണ്ട് നമുക്ക് അതായത് കുറച്ചൊരു ഉള്ളിലോട്ടേയ്ക്ക് പോയിട്ട് മെയിൻ റോഡിൻ്റെ റോഡ് സൈഡൊക്കെ നമുക്ക് ഇഷ്ട്ടം പോലെ സ്ഥലമൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അത് റെഡി ആക്കി തരാൻ പറ്റുവൊള്ളു പക്ഷേ ടൗണിൽ മെയിൻ ടൗണിൽ പിന്നെ റേറ്റ് കൂടുതൽ നമുക്ക് കുറച്ചും കൂടൊരു പത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല സ്ഥലം കിട്ടും ആ നോക്കാം നോക്കാം

ആണല്ലേ അപ്പം നിങ്ങൾക്ക് വീടും സ്ഥലവും അങ്ങനെ വേണോ അങ്ങനെയാണേ മാം ഇരുപത്തഞ്ച് സെന്റ് ഇല്ല ഒരു ഇരുപത് സെന്റ് സ്ഥലം നമുക്കിവിടെ അതായത് പിന്നെ കോഴിക്കോട് ടൗണിൻ്റെ കുറച്ച് അപ്പുറത്തേക്കിണ്ട് ഇരുപത് സെന്റ് സ്ഥലമാകുമ്പോൾ നമക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ലക്ഷത്തിനുള്ളൊരു സ്ഥലമുണ്ട് അ ആ ആ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങളൊന്ന് അതായത് ഹസ്ബൻഡും ആയിട്ടൊന്നു വന്നൊന്ന് നോക്കിനോക്ക് ഇന്ന് വൈകുന്നേരമാണെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് വിളി വിളിച്ചാൽ മതി ഇന്ന് സൺഡെം കൂടിയല്ലേ അപ്പം നിങ്ങൾ ഫ്രീ ആയിരിക്കൂലോ അപ്പം നിങ്ങൾ ഈവനിംഗ് ഒന്നെന്നെ വിളിച്ചിട്ട് നമുക്കൊന്ന് സ്ഥലം കണ്ടാലോ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾ വിളിക്ക് കേട്ടോ ആ ആ ആ മതി മതി മതി ഓക്കെ ഓക്കെ ഓ മതി മതി മതി വരുമ്പോൾ വിളിച്ചാൽ മതി അധികം വൈകുന്നേരം ആക്കണ്ട മഴയൊക്കെ അല്ലേ ആ ഓക്കെ ആ ഓക്കെ